ഇപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ച ആൾക്കാരെയൊക്കെ വീട്ടിൽ ഇരിക്കുകയായിരിക്കും അപ്പോൾ അവരെ ഫ്രീ ടൈമിൽ ഒക്കെ അവർക്ക് എക്സ്ട്ര കരിക്കുലർ ആക്ടിവിറ്റീസുകളുണ്ടാകും എന്നാലും അവരുടെ ഒരു ചെറിയൊരു സ്പെൻഡ് അവർ ടിവി കാണുന്നതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനു യൂസ് ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് പുതിയ മൂവീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിലെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നമുക്ക് അതിൽ ചെയ്യാം അപ്പോൾ ഇത് അവർക്ക് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാല് അവർക്ക് വരുന്ന മൂവീസ് നല്ല നല്ല മൂവീസ് ഒക്കെ അവർക്ക് അത് എടുത്ത് കാണാനൊക്കെ പറ്റും അവർക്കത് യൂസ്ഫുൾ ആണ് പിന്നെ സോഷ്യൽ മീഡിയ അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്താ പറയുക അവർക്ക് ഇൻറ്റർനെറ്റ് അത്യാവശ്യമാണ് അവരുടെ ഹൗസ് അവര് ഫ്രീ ടൈമിലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കിപ്പോൾ കുറച്ചുനേരം മൊബൈൽ നോക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻറർനെറ്റ് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്